അതെ പറഞ്ഞോളൂ മാഡം ആ ഓക്കെ മാഡം നമ്മൾ ഇപ്പോൾ ഗോൾഡ് ലോണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മള് അത് പവൻ ഇപ്പം നമ്മള് മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ആണ് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു പവൻ ഗോൾഡ് വെക്കുവാണെങ്കിൽ നമുക്ക് മുപ്പത്തേഴ് ഇരുന്നൂറ് ആണ് കിട്ടുക മെമ്പർഷിപ്പ് നമ്മള് ത്രീ പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് ആ ഒര് ഇതിൽ ആണ് ചെയ്യുന്നത് ഡെയിലി സ്കീം ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻ്ററസ്റ്റ് കുറച്ച് ഒക്കെ ചെയ്യാൻ പറ്റും അടവും കാര്യങ്ങളും നമുക്ക് മന്ത്ലി ആണ് വരിക അത് ഇപ്പോൾ മാഡം എടുക്കുന്ന എമൗണ്ട് അനുസരിച്ച് ആണ് നമുക്ക് ഇത് വരിക ഇത് പുതുക്കി പുതുക്കി ആണേൽ നമുക്ക് എത്ര പണം വേണേലും ഇപ്പോൾ മാഡത്തിന് ഒരു മാസത്തേക്ക് മതിയെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഇത് ഫുൾ പേയ്മെൻറ്റ് റിട്ടേൺ അടയ്ക്കാൻ കഴിയുവാണെങ്കിൽ അത് ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റും മുപ്പത്തേഴേ ഇരുന്നൂറ് വെച്ചിട്ട് മാസം നമുക്ക് ഇപ്പോൾ അടവ് ആയിട്ട് അല്ല മാഡം ഇപ്പോ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസം നമ്മക്ക് അത് പുതുക്കി പുതുക്കി വെക്കാ ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കുവാണെങ്കിൽ അത് നമുക്ക് പുതുക്കാൻ പറ്റും അതായത് പിന്നെ അടുത്ത മാസത്തേക്ക് നമ്മക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ അങ്ങനെ പറ്റൂള്ളൂ അങ്ങനെയാണ് നമ്മള് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ മാഡത്തിന് എന്തിന് ഉള്ള ലോൺ ആണ് വല്ല പ്രോപ്പർട്ടി അങ്ങനെ എന്തേലും ഇത് തുടങ്ങാൻ അങ്ങനെ എന്തേലും ആണോ എന്തെങ്കിലും ഇത് ബിസിനസ്സ് തുടങ്ങാൻ അങ്ങനെ എന്തിൻ്റെ ആവശ്യത്തിന് ആണെങ്കിൽ നമുക്ക് അല്ലാതെ ലോണുകള് കിട്ടും ആ ഓക്കെ നമുക്ക് വല്ല സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലാണ്ട് വേണമെങ്കിൽ ലോൺ അല്ലാണ്ട് ചെയ്ത് തരാം ആ ഓക്കെ നമ്മൾ ഇപ്പോൾ അല്ലാണ്ട് ചെയ്യാൻ പറ്റും മാഡം ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്ലാണ്ട് വല്ല സ്ഥലമോ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത ലോൺ വേണമെങ്കിൽ സാംഗ്ഷൻ ആവും ആ അപ്പോൾ ഗോൾഡ് തന്നെ വേണമെന്ന് ഒന്നും ഇല്ല ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ലോ സ്ഥലം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്ത പ്രൂഫ് കിട്ടുവാണെങ്കിൽ അത് ആയിരിക്കും നമുക്ക് കുറച്ച് ബെറ്ററ് അത് ഇപ്പം മാഡം ബാങ്കിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം പെട്ടെന്ന് തന്നെ ആക്കി തരാൻ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും മാഡം വന്ന് ഒന്ന് എൻക്വയറി ചെയ്തിട്ട് മേഡത്തിന് ഏത് ആണ് ബെറ്ററ് തോന്നുന്ന അത് ചെയ്താൽ മതി ഓക്കെ എന്നാൽ മാഡം നാളെ ഒന്ന് ബാങ്കിലേക്ക് വന്നോളൂ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ